ആ ഹലോ ആ അതെ ആ മതി പറഞ്ഞോളൂ

എ സി സി എ സി സി പ്ലസ് മലബാര് കേരള അങ്ങനത്തെ കുറേ ബ്രാൻഡുകളുണ്ട് ഇതില് നിങ്ങള് എങ്ങനെ റേറ്റ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആ മുന്നൂറ്റൻപത് നാനൂറ് എന്നു പറയുമ്പോഴതില് എ സി സി പ്ലസ് വരുന്നുണ്ട് എ സി സി വരുന്നുണ്ട് ഈ നാനൂറൊക്ക ആകുമ്പോള് എ സി സി പ്ലസ്സ് അങ്ങനത്തതൊക്കെ വരുന്നുണ്ട് നിങ്ങളുടേത് എത്രയാണ് പതിനാല് സ്ക്വയർ ഫീറ്റാണോ പറഞ്ഞത് എങ്ങനെ പതിനായിരമല്ലേ ആ അപ്പോള് അതിനു നല്ല സ്ട്രോങ്ങായിട്ടുള്ള സിമെന്റെന്നു പറയുമ്പോള് എ സി സി പ്ലസൊക്കെ അതിന് റെക്കമെന്റ് ചെയ്തതാണ് ആ ആ അതെ നാനൂറ് റേറ്റില് വരും ആ അഞ്ഞൂറ് ചാക്കിനോ ആ അഞ്ഞൂറ് ചാക്കൊക്കെ വേണ്ടിവരും അപ്പോള് ഡിസ്കൗണ്ട് ഉണ്ട് ഒരു നാല്പത് പെർസെന്റേജ് ആയിട്ട് ഡിസ്കൗണ്ട് ആഡ് ചെയ്യുന്നതാണ്

ആ ഡെലിവറി നിങ്ങള് അത് മലപ്പുറമല്ലേ പറഞ്ഞത് ആ മലപ്പുറത്തേക്ക് ഡെലിവറി ഫ്രീ ആണ് ഞങ്ങള് ആ കവറെയ്യും ആ കിലോ മീറ്ററില് കവറെയ്യുന്നുണ്ട് ഞങ്ങള്ക്കൊരു ആ അങ്ങനത്തെ രീതീയിലാണ് ഞങ്ങള് മേലാറ്റൂരാണ് ആ ആ ആ നിങ്ങള്ക്ക് അങ്ങനെ കണ്ടു വാങ്ങണമെന്നുണ്ടെങ്കില് നിങ്ങള് ക്വാളിറ്റി പരിശോധിച്ചു വാങ്ങാനാണെങ്കില് അങ്ങനെ കടയില് വന്നു വാങ്ങാവുന്നതാണ്

മേലാറ്റൂരും പാണ്ടിക്കാട് റോഡിൻ്റെ അടിയില് ഒരു ഒലിപ്പുഴ എന്നു പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്

പേര് കേരളാ സിമെന്റ്സ്

ആ പതിനഞ്ചാം തീയതി പന്ത്രണ്ടോ പതിനഞ്ചോ പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ അപ്പോഴത്തേക്കിന് എത്തിക്കാവുന്നതാണ്

ആ നിങ്ങള് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഏതാണെന്നുവച്ചാല് നിങ്ങള് തെരഞ്ഞെടുത്താല് മതി ഞങ്ങള് ഡെലിവറി ഞങ്ങള് തന്നെ ഏറ്റെടുത്തോളും ആ എന്നാല് ഓക്കെ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്തതില് താങ്ക്യൂ